ആ അച്ഛാ എന്ന എന്നാ അച്ഛാ വിളിച്ചത് ആ ആ ആ കലാപരിപാടി ആ കലാപരിപാടി ഒക്കെ തയ്യാറാണച്ഛാ പിന്നെ മാതൃവേദിക്കാർ അവർ ഡാൻസ് കളിക്കുകയെന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രയർ ഡാൻസിനുള്ള ഒരുക്കമൊക്കെ പൂർത്തിയാക്കി അവർ ജീനാ പഠിപ്പിക്കുന്നുണ്ട് പിന്നീട് കുട്ടികൾക്കൊരു പ്രേ പ്രയർ ഡാൻസ് ചെയ്യുന്നത് ജിനിയ പിന്നെ ജിനിയ അ കൊച്ചു കുട്ടികളാണ് ചെയ്യുന്നത് അവരങ്ങനെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊരു സ്കിറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരെണ്ണം എഴുതിയാലൊക്കെ കൊള്ളാമല്ലോയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഉം ആ ആ ഈ കാലിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ പിള്ളേർക്കാണെങ്കിൽ കുറേ കൂടി ബോധവൽക്കണ വത്ക്കരണം കൊടുക്കുന്ന രീതിയിൽ ഒരു ഒരു കാര്യം ചെയ്യാമെന്നു ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ അപ്പം നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടികളാണെങ്കിൽ കൂടുതലായിട്ട് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതു കൊണ്ടതവരുടെ പഠിത്തത്തെ ഒക്കെ ബാധിക്കുന്നുണ്ടല്ലോ അപ്പോഴാണെങ്കിൽ ആ കാര്യമൊക്കെ ഒന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ പറഞ്ഞു കൊടുക്കാനും അതങ്ങനെയല്ല നമ്മൾ മാറി ചിന്തിക്കണമെന്നൊക്കെ ഒന്നോർമ്മപ്പെടുത്താനുമൊക്കെയാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് അ അ ആ ആ ആ ഓ തീർച്ച അതെ ആഴ്ചയിൽ അ പിന്നെ കുട്ടികളൊക്കെ കുട്ടികളെ നോക്കാം പിള്ളേർ ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിപ്പിക്കാത്ത കു കുമ്പസാരിക്കാത്ത കുട്ടികളെയൊക്കെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ തീർച്ഛയായിട്ടും നമുക്കാണെങ്കിൽ കുമ്പസാരിക്കുന്ന കാര്യങ്ങളിലോട്ടൊക്കെ കുമ്പസാരിക്കാനൊക്കെ വരാൻ വേണ്ടിയിട്ടു പറയാം പിന്നെ ആ ആ ആ ആരാണ് അച്ഛാ ധ്യാനിപ്പിക്കാനായിട്ട് വരുന്നത് ധ്യാനിപ്പിക്കാൻ ആരാണ് വരുന്നത് ആ ഓ ഓ ആ ആ ആ ആ ആ അതെ അപ്പം പാട്ടിനൊക്കെ പുറത്തു നിന്നാൾ വരുമോ ആ ഒരു ടീം ആ ആ ആ അവർ ടീമായിട്ടാണോ വരുന്നത് അവർ ടീമായിട്ടാണോ വരുന്നത് ധ്യ ഓ ഓ ഓ ഓക്കേ പിള്ളേരൊക്കെ ആ ശരിയച്ഛാ എന്നാൽ ശരി പിന്നെ